ഹലോ എടീ ഇന്നില്ലേ ഞാൻ ഒരു നോവല് എടുത്തിട്ടുണ്ടായിരുന്നു ആ നോവല് വായിക്കാൻ എടുത്തപ്പോഴ്ത്തേക്ക് നമ്മൾ പണ്ട് എല്ലാം നോവല് വായിക്കില്ലായിരുന്നോ ആ ഒരു ഇത് ഇപ്പം ഇല്ല ഇപ്പോഴത്തെ നോവൽ എല്ലാം എന്താ പറയേണ്ടത് നമ്മുടെ സാങ്കൽപ്പികം മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒക്കെയാണല്ലോ എടി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ നോവലിൽ ആണെങ്കിലേ ഒരു കഥ കഥയാണോ ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടും അങ്ങനെയെല്ലാം ആയിരുന്നല്ലോ ഇപ്പം ഒരു സുഖമില്ല നോവല് വായിച്ചിട്ട് എന്താ ചെയ്യുക പിന്നെ നിൻ്റെ അറിവിൽ വേറെ നല്ല നോവലുകൾ വല്ലതും ഉണ്ടോ ഇപ്പം ഞാൻ ഒരു നോവൽ എടുത്തു നമ്മുടെ ജാസിമാണിൻ്റെ പ്രണയം എന്ന് പറയുന്ന ആ ഒരു നോവൽ ഒക്കെ എന്താ പറയുക സെക്കൻറ്റും ഫസ്റ്റും എല്ലാം നല്ല ഒരു ഇതായിരുന്നു അതായത് യഥാർത്ഥ കഥയുമായി ബന്ധപ്പെട്ടത് പോലെ നമുക്ക് തോന്നും പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോഴത്തെ നോവലുകൾ ഒന്നും തന്നെ കൊള്ളില്ല എല്ലാം കൈ വിട്ടുള്ള ഇതാണ് ഒന്നിനും ഒരു ചേർച്ചയില്ലാത്ത പോലെയൊക്കെ ആണല്ലോ എന്താ എടുത്തും പോയി എന്താ ചെയ്യുക പിന്നെ നോവല് വായിക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ പക്ഷേ ഒരു സുഖമില്ല അത് വായിച്ചിട്ട് നോവല് വെറുതെ നമ്മൾ ചുമ്മാ നോട്ട് നോക്കുന്നത് പോലുള്ള ഒരു ഫീൽ ആണുള്ളത് നോവല് ഒരു ഇതും തോന്നിക്കുന്നില്ല